ആ ജോസഫ് ബ്രോക്കർ അല്ലേ ആ ഞാൻ ആൻസി ആണേ എനിക്ക് എനിക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിക്കുവായിരുന്നേ നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിലേ എനിക്ക് ഒരു ഇത്തിരി സ്ഥലം വാങ്ങണം എനിക്കൊരു വീട് വയ്ക്കാൻ വേണ്ടി ഒരു സ്ഥലം വാങ്ങണം ഒരു അഞ്ച് സെന്റ് അഞ്ച് സെന്റിൽ കുറയാത്ത സ്ഥലം ഒരു വീടിന് മാത്രം ഉള്ളത് മതി അപ്പം എനിക്ക് ആ അത്യാവശ്യം റോഡ് സൗകര്യം ഉള്ള ഇടമായിരിക്കണം പക്ഷേ വലിയ വില ആകാൻ പാടില്ല വലിയ വിലയാകാതെ നമ്മുടെ അതായത് ബഡ്ജറ്റ് ബഡ്ജറ്റിൽ അടങ്ങുന്ന ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു സ്ഥലം എവിടെയെങ്കിലും നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ അല്ല അവിടെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ആദ്യം പറ എന്നാലല്ലേ നമുക്ക് പ്രതീക്ഷിക്ക് ഉള്ളിലേക്ക് കയറിയാലോ

ആ ആ എന്നാൽ ഉള്ളിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം വണ്ടി വരാൻ സൗകര്യം ഒക്കെ ഉണ്ടോ

ആ ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ല കുട്ടനാട് ഭാഗം ആണോ കുട്ടനാട്ടിൽ ആ ആ അത് മെയിൻ റോഡ്സൈഡിൽ ഒക്കെ കിട്ടുമോ ആണല്ലേ ആ ആ ഉവ്വ് ഉവ്വ് ആ എനിക്ക് എനിക്കിപ്പോൾ ആണല്ലേ വെള്ളം ഒക്കെ കാണും അല്ലേ വെള്ളവും തോടും ആ റോഡ് സൗകര്യം ആ ഹാ ഹാ ഹാ എനിക്ക് അപ്പോൾ എങ്ങനെയെങ്കിലും എൻ എനിക്ക് ആവശ്യം ഉള്ളത് വലിയ വില ആകരുത് എന്നാൽ അത്യാവശ്യം സൗകര്യവും വേണം അങ്ങനെ ഒന്ന് ഒപ്പിച്ച് തരാൻ പറ്റുമോ അത് എങ്ങനെ മൂന്ന് മൂന്ന് ലക്ഷം രൂപയെന്ന് ഉദ്ദേശിക്കുന്നത് സ് നാണോ ഈ അഞ്ച് അഞ്ച് സെന്റ് സ്ഥലം കിട്ടുമോ ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഏ ആ അതാണ് ഞാൻ ചോദിച്ചത് ഒരു സെന്റിന് മൂന്ന് ലക്ഷം വെച്ചല്ലേ ആ ഹാ ഹാ ഹാ ഓ അത് ഇത്തിരി കൂടുതലല്ലേ മൂന്ന് സെൻ മൂ ഒരുല മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലല്ലേ അതെ അത്രയും കൊടുത്ത് അല്ല അത്രയും കൊടുത്ത് ഞങ്ങൾക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ അതിലും കുറച്ചുംകൂടെ ഒക്കെ കുറച്ച് തരാൻ പറ്റുമോ അപ്പം ഞങ്ങൾ എത്ര വരെ ഞാനിപ്പോൾ എത്ര രൂപയാണ് എന്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു വിലയിട്ട് നിങ്ങൾ സ്ഥലം എനിക്ക് തരില്ലേ അത് പറ്റില്ലല്ലോ ഞാൻ അതായത് എന്റെ സ്ഥലം എനിക്ക് ഇത്ര രൂപയുടെ എനിക്ക് രണ്ട് ലക്ഷം രൂപ ഒരു ഒന്നര ലക്ഷം രൂപയുടെ സ്ഥലം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഇതിന് ഒന്നര ലക്ഷം രൂപയാണെന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങ് എനിക്ക് വിലയിട്ട് തരില്ല അതല്ലല്ലോ എനിക്ക് അതല്ല അറിയേണ്ടത് എനിക്ക് എനിക്ക് സ്ഥലത്തിന്റെ വിലയാണ് അറിയേണ്ടത് അല്ലാതെ എന്റെ കൈയിൽ ഉള്ള കാശിന് ഞാൻ സ്ഥലം തരാൻ അത് വേണ്ട എനിക്ക് നിങ്ങളുടെ സ്ഥലത്തിന്റെ വില അറിയണം അല്ല എനിക്ക് നിങ്ങൾ വില പേശുന്നത് നിങ്ങൾ ആദ്യമേ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് അങ്ങനെ ചോദിച്ച് അല്ലല്ലോ പറയേണ്ടത് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് വെച്ചിട്ട് എന്റെ കയ്യിലെ രൂപ പറഞ്ഞ് കഴിയുമ്പോൾ ആ പ്രതീക്ഷിക്കുന്ന ആ എനിക്ക് ഏതായാലും നിങ്ങൾ അവിടെ ഉള്ള വാ ഈ പല സ്ഥലങ്ങളിൽ ഏരിയ വെച്ചുള്ള റേറ്റ് എന്നോടൊന്ന് പറയ് ഞാൻ എന്നിട്ട് സെലക്റ്റ് ചെയ്തിട്ട് രണ്ടാമത് വിളിക്കാം കേട്ടോ ആ ഈ നമ്പർ ആണ് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എനിക്ക് വില ആയി വില എന്നോട് പറയണം ഇട്ടുതരണം അതിനുശേഷം ഞാന് ഈ വേറെ ഏരിയയിലാണ് വേണ്ടത് എന്നുള്ളത് നിശ്ചയിക്കാം ഓക്കെ താങ്ക് യു ആ ഓക്കെ ഓക്കെ